കഥകളി മോഹിനിയാട്ടം ഇതൊക്കെ നടത്തുന്നത് നമ്മുടെ ക്ഷേത്ര ഹിന്ദു ക്ഷേത്ര അങ്കണത്തിൽ വെച്ചാണ് കൂടുതലും നടത്ത നടത്തി വരാറുള്ളത് അത് പുറത്ത് കൊണ്ടുവന്ന് വിദേശികൾക്ക് വിദേശികൾക്കൊക്കെ അത് കാണുവാൻ ഭയങ്കര താല്പര്യ ഉള്ള കൂട്ടത്തിലാണ് അവർക്കത് ആസ്വദിക്കാനായിട്ടത് പുറത്ത് കൊണ്ടുവന്നാൽ നല്ല കാര്യങ്ങള് ആയിരിക്കും നല്ലതായിരിക്കു അത് അതിന് നമ്മുടെ വള്ളംകളി അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ നടത്തുമ്പഴത്തേനും അങ്ങനെയൊക്കെ കളിയൊക്കെ അങ്ങനെ നടത്തുവാണെങ്കിൽ അതു ഒക്കെ ഒരു അവർക്ക് കണ്ടാൽ ആസ്വദിക്കാനുള്ള ഒരു ഇതായിത്തീരും നല്ല കാര്യമായിത്തീരും അതിങ്ങനെ വള്ളം കളിയൊക്കെ നടത്തുമ്പഴത്തേനും ബോട്ട് ചങ്ങാടം വെച്ച് കെട്ടി വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ ചില സ്ഥലങ്ങളിലൊക്കെ കഥകളി അതുപോലെയുള്ള ചില കലാരൂപങ്ങളൊക്കെ നടത്തി വരാറുണ്ട് ഉണ്ടായിരുന്നു പണ്ടൊക്കെ പണ്ടൊക്കെ അങ്ങനെ ചില പരിപാടികളൊക്ക നടത്തി പിന്നെ വരാറുണ്ടായിരുന്നു ഇപ്പോൾ അതെല്ലാം നിലച്ചിട്ട് അവർക്കത് കാണാനുള്ള ഒരു സൗകര്യ ഇല്ല അങ്ങനെയൊക്കെ ഒരു സൗ പുറത്ത് കൊണ്ടുവന്ന് സൗകര്യങ്ങളൊരുക്കി കൊടുത്താലങ്ങനെ ഈ വള്ളംകളി സമയത്തൊക്കെ സമയ ഈ ഇടവേള സമയത്ത് അങ്ങനെ ആ ബോട്ടെൽ ആ ചങ്ങാട ബോട്ടേൽ ആ ബോട്ടേലൊക്കെ അങ്ങനെ കൊണ്ടുപോരുവാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും അതു കാണുവാനും ആസ്വദിക്കാനും ഒക്കെയുള്ള ഒരു സൗകര്യം ആയി തീരും അത് നല്ല കാര്യവാണ്